ഹലോ ക്യാബ് ഡ്രൈവർ അല്ലേ നിങ്ങൾ എവിടെയാണെ ന്ന് അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് നിങ്ങൾ ഒരു പിക് അപ്പ് ലൊക്കേഷനിൽ എത്തിയെന്ന് പിന്നെ വേറൊരാള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയതാ പക്ഷെ നിങ്ങളെ കാണാൻ കഴിയുന്നില്ല കൃത്യമായിട്ട് എവിടെയാ ഉള്ളത് ഞാൻ ഇപ്പം പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ പലചരക്ക് കടേന്റടുത്താ ഉള്ളത് ആ പിന്നെ അവിടെ കോഴിക്കോട് റോഡില്ലേ കോഴിക്കോട് റോഡ് പിന്നെ വിന്നേഴ്സ് ബേക്കറീൻ്റെ താഴേക്ക് ഒരു പച്ചക്കറി മാർക്കറ്റ് ഒക്കെ ഉണ്ട് സപ്ലൈക്കോ ഒക്കെ ഉള്ള ഒരുസ്ഥലത്തുണ്ടേ അവിടെയാണ് നിൽക്കുന്നെ ചേട്ടൻ ചേട്ടനങ്ങോട്ട് വന്നാൽ മതി ആ അവിടെ തന്നെ അവിടെ തന്നെ സപ്ലൈക്കോന്റവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും ഒരു റെഡ് ചുരിദാർ ഇട്ടിട്ട് ആ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ആ പലചരക്ക് കടയില്ലേ പലചരക്ക് കട അറിയില്ലേ ആ അവിടെ തന്നെ ഇണ്ട് എന്നെ ഇപ്പോൾ മറ്റേ ചേട്ടൻ വിളിച്ചതേയുള്ളു നിങ്ങൾ പിക് അപ്പ് ലൊക്കേഷൻ്റെ അവിടെ എത്തീന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കുറച്ച് സൈഡിലേക്ക് മാറി നിന്നതാ